ഹലോ ഇത് ലാൻഡ്ലൈൻ്റെ എന്താണ് ഓഫീസല്ലേ ഞാനിതിൻ്റെ പ്രൊവൈഡറിനായിട്ട് എന്താണ് ഹെൽപ് ലൈനിില് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോള് എന്താണ് കോളൊന്നും പോയില്ല പിന്നെ കോള് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ ഇതിനു വേണ്ടിയൊക്കെ ഇപ്പോള് കുറേ എന്താണ് രണ്ടുമൂന്നു വട്ടം ഫോൺ എടുക്കാതെ വരികയും എന്താണ് ബില്ല് പേയ്മെന്റ് ചെയ്തതൊക്കെ അതു നിരസിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോള് അതൊന്ന് ചെക്കീയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത് അപ്പോള് നിങ്ങള്ക്ക് എന്താണ് അതില് കൂടുതല് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കില് ഒന്ന് അറിയിക്കാൻ പറ്റുമോ അത് എന്താണ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എൻ്റെ അക്കൗണ്ട് നമ്പർ വേണമെങ്കില് ഷെയറെയ്യാം അപ്പോള് ആ നമ്പറില് വച്ചുനോക്കിയിട്ട് എന്താണ് ബില്ല് പേയ്മെൻറ് സക്സസ്സാവാത്തത് എന്നൊന്നു നോക്കിയിട്ടു പറഞ്ഞുതരുമോ അതുകൊണ്ട് എന്താണ് മൂന്നുനാലുവട്ടം വിളിച്ചപ്പോള് എന്തോ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഫോണ് അപ്പോള് ഇതിനെപ്പറ്റിയിട്ട് എന്തേലും വിവരം പറഞ്ഞുതരുമോ എന്താണ് മൂന്നുനാലു പ്രാവശ്യം ഇതിനായിട്ടു തന്നെ ഞങ്ങള് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും കോള് നിരസിക്കുകയാണു ചെയ്തത് ഹെൽപ് ലൈനില് വിളിച്ചപ്പോള് അപ്പോള് ഞങ്ങള് പേയ്മെൻറ് അടച്ചിട്ടുണ്ട് അപ്പോള് ഞങ്ങള്ക്ക് അവിടെ കയറിട്ടില്ല എന്നുണ്ടെങ്കില് റീഫണ്ടായിട്ടു കയറുമോ തിരിച്ചക്കൗണ്ടിലേക്ക് അതോ ഇനി നേരിട്ട് വന്ന് അടച്ചാലേ അത് പ്രൊസീഡാവുകയുള്ളോ അതിനെക്കുറിച്ചു കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടു വിളിച്ചതായിരുന്നു അതു പ്രശ്നം പെട്ടെന്നു പരിഹരിച്ചു തരാമായിരുന്നു എങ്കിൽ ഇനി അക്കൗണ്ടിലേക്ക് പൈസ കയറിട്ടില്ല എന്നുണ്ടെങ്കില് നേരിട്ടു തന്നെ ആ റീഫണ്ടായിട്ടു കിട്ടുകയാണെങ്കില് നേരിട്ടു വന്ന് ക്യാഷ് അടയ്ക്കാനൊക്കെ തയ്യാറാണ് അതുകൊണ്ട് അതിൻ്റെ എന്താണ് കേബിൾ കണക്ഷനൊക്കെ ഒന്നു നേരെയാക്കിത്തരുമോ പിന്നെ പൈസ അടയ്ക്കാതായപ്പോള് കേബിള് കട്ടായിട്ടുണ്ടായിരുന്നു അപ്പോള് അതു പറയാൻ വേണ്ടിയിട്ടാണു വിളിച്ചത് അപ്പോള് അതൊക്കെയൊന്ന് ഓക്കെയാക്കിത്തരുമോ ഇപ്പോള് പ്രശ്നം എന്താണ് പരിഹരിക്കാമെന്നുണ്ടെങ്കില് എന്താണ് ഓക്കെ ഇനി വിളിക്കേണ്ടി വരില്ലല്ലോ ഇനി അഥവാ എന്തേലും എന്താണ് വന്നുസംസാരിക്കണ്ട പ്രശ്നമാണെന്നുണ്ടെങ്കില് എന്താണ് വന്ന് വന്നിട്ട് അത് സോൾവാക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കില് എന്താണ് അറിയിക്കണേ ഓക്കെ താങ്ക്യൂ